ആ ഹ്യുണ്ടായീൻ്റെ ഷോറൂമല്ലേ എനിക്ക് ഒരു നല്ലൊരു കാർ എടുക്കാൻ വേണ്ടീട്ടായിരുന്നു അപ്പം അതിന് എത്ര ഇല്ല എക്സ്ചേഞ്ച് ഒന്നും ഇല്ല എനിക്ക് കാറില്ല അപ്പം എൻ്റെ വീട്ടിൽ എല്ലാവർക്കും കൂടി ഒന്ന് എവിടെങ്കിലൊക്കെ പോവാൻ വേണ്ടീട്ടൊരു കാറിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു എനിക്കാകെ ബൈക്ക് മാത്രമേ ഉള്ളൂ ഒരു കാറും കൂടെ എടുക്കാൻ വേണ്ടീട്ടായിരുന്നു ഇപ്പം ഓണത്തിന് വല്ല ഓഫറോ കാര്യങ്ങളും ഉണ്ടോ ബഡ്ജറ്റ് ഞാനൊരു ആറ് ആറര ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് ലോൺ കിട്ടൂലേ ആ ഓക്കെ ഓക്കെ ആ ആ ഈ ലോവെസ്റ്റ് ഓപ്ഷൻന്ന് പറയുമ്പം അതിനകത്തെന്തെങ്കിലും അതിൽ എന്തെങ്കിലും അതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടീട്ടായിരുന്നു ആ പിന്നെ ആ ആ ബേക്കും ഉണ്ടാവില്ല അല്ലേ ഉണ്ടാവില്ല അപ്പം ഈ സ്റ്റീരിയോ നമ്മൾ അഡീഷണല് ഉള്ള ഉള്ളത് എടുക്കണോ അതോ ഇല്ലാത്തയാണോ നല്ലത് ബെറ്ററായിട്ട് നല്ലത് മറ്റേതിന് പൈസ കൂടുതലായിരിക്കും അല്ലേ ആണോ അതിന് എത്രയാണ് അപ്പം ക്യാഷ് എങ്ങനെയാണ് വരുന്നത് റേറ്റ്

ആ ഓക്കെ ഓക്കെ ആ മുപ്പത് രൂപ അല്ലെ എട്ട് ലക്ഷത്തി എത്ര ആയിരുന്നു എഴുപത്രണ്ടായിരം അല്ലാണ്ട് നമ്മൾ ഇപ്പം ഇതൊക്കെ ഉള്ള മോഡൽ ആണെങ്കിൽ എത്ര രൂപ വരും ഒൻപത് ലക്ഷത്തി വരും അപ്പം ആ ഒരു ലക്ഷത്തിന് മേളിൽ കൂടുതൽ ഉണ്ടാവും അല്ലേ അപ്പോൾ ഇതായിരിക്കും നല്ലതെന്ന് തോന്നുന്നല്ലേ നമ്മൾ നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ ഇതൊക്കെ ചെയ്ത് തരൂല്ലേ ചെയ്ത് തരൂലേ ആ ഓക്കെ ഓക്കെ അങ്ങനെ ആണെങ്കിൽ കളറ് ഞാൻ അവിടെ വന്ന് ബുക്ക് ചെയ്താൽ മതിയോ നോക്കീട്ട് കളർ ഏതൊക്കെയാണ് ഉള്ളത് ആ പിന്നെ ആ വരുന്ന് ലോ ഓപ്ഷനിൽ അല്ലേ അലോയ് ഒക്കെ നിങ്ങൾ തന്നെ ചെയ്തേരോ അതോ അലോയിക്കൊക്കെ എത്രയാണ് വരുന്നത് വരുന്നുണ്ട് അല്ലെ ആ ഓക്കെ ഓക്കെ അങ്ങനെ ആണെങ്കിൽ ഞാൻ അവിടെ വന്നിട്ട് നോക്കീട്ട് ബുക്ക് ചെയ്യാം അപ്പം ആദ്യം ബുക്ക് ചെയ്യുമ്പം എത്ര പൈസയാണ് വരണത് തൊണ്ണൂറായിരം രൂപ അല്ലെ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ എന്നാൽ ഞാൻ അവിടെ വന്നിട്ട് ഞാൻ ബുക്ക് ചെയ്യാം എന്നാൽ ഓക്കെ ഓക്കെ എന്നാൽ